ഹലോ ഐഡിയ കസ്റ്റമറല്ലേ എൻ്റെ മൊബൈലിൽ പൈസ ഇട്ടാലെപ്പോഴും തീർന്നു പോകാണല്ലോ അതിനെന്താണ് കാരണം നിങ്ങൾ കൂടുതൽ മെസ്സേജുകളെല്ലാം അയച്ചിട്ടല്ലേ ഇങ്ങനെ ഫോണിൽ പൈസ തീർന്നു പോകുന്നത് ഇനി ഇതിന് ഞാനെന്താണ് വഴി കാണേണ്ടത് ഒരു വഴി പറഞ്ഞു തരണം അല്ലെങ്കിൽ ഞാൻ പരാതി കൊടുക്കും ഈ ഫോണിൽ പൈസ ഇട്ടിട്ട് പത്ത് ദിവസം പോലും ആയിട്ടില്ല അതിൻ്റെ മുന്നേ എപ്പോഴും തീർന്നു പോകുന്നു ഞാൻ മെസ്സേജൊന്നും ഉപയോഗിക്കുന്നില്ല ഒരുപാട് മെസ്സേജ് കമ്പനി മെസ്സേജുകളിങ്ങനെ വന്നു കൊണ്ടിരിക്കുന്നു അതു കൊണ്ടാണ് ഇത് എൻ്റെ ഫോണിൽ പൈസ തീരുന്നത് നെറ്റും കോളും നെറ്റൊന്നും ഞാനുപയോഗിക്കുന്നില്ല ഞാൻ ആകെ കോൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഇരുപത്തെട്ട് ദിവസത്തിൽ പൈസ ഇട്ടാൽ പതിനഞ്ച് ദിവസം പോലും ഒക്കില്ല അതിനു കാരണം നിങ്ങൾ പറഞ്ഞു തരണം കസ്റ്റമർക്ക്